ഇപ്പോൾ നൂതന സമൂഹ മാധ്യമ വേദികളെന്നു പറഞ്ഞാൽ ഇപ്പം ഫോൺ വഴി ഫേസ് ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അങ്ങനെയുള്ള വഴി ഒത്തിരി ആൾക്കാരിലേക്ക് പല സ്ഥലങ്ങളുടെയും പിന്നെ വീഡിയോ ഓരോരുത്തരം വീഡിയോ ഇട്ട് ഒത്തിരി സ്ഥലങ്ങളെക്കുറിച്ചും ആൾക്കാർക്കൊത്തിരി അറിവ് ഈ ചില സ്ഥലങ്ങളൊക്കെ അങ്ങനെ ഒത്തിരി ഇതാ പ്രചാരത്തിൽ ഇതാകുന്നു ഇതു വഴിയാണ് വീഡിയോ കണ്ട് ആൾക്കാരൊത്തിരി ആൾക്കാർ പല സ്ഥലത്തു നിന്നും ഓ വന്ന് ഒട്ടും അറിയപ്പെടാത്ത സ്ഥലങ്ങൾ സ്ഥലങ്ങളൊക്കെ ഒത്തിരി പോപ്പുലറായതും ഈ വീഡിയോ കണ്ടിട്ടൊക്കെയാണ് പിന്നെ ഒരെക്സാംപിൾ പറഞ്ഞാൽ അരിവിക്കുഴി എന്നു പറയുന്ന ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം അവിടെ അരുവിക്കുഴിയെന്നു പറഞ്ഞാൽ ആരും അറിയപ്പെടാത്തതൊരു സ്ഥലമായിരുന്നു അവിടുത്തെ വാട്ടർ ഫോൾസ് അവിടെ അടുത്തുള്ള ആൾക്കാർ മാത്രം കാണുന്ന പിന്നെ ആരാണ്ടൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇട്ടു ഫേസ്ബുക്കിലൊക്കെ ഇട്ടു അവിടെ ആൾക്കാർ വരാൻ തുടങ്ങി അങ്ങനെ ഇപ്പം ആ സ്ഥലമെന്നു പറഞ്ഞാൽ ഒത്തിരി ദൂരെ നിന്നൊക്കെ ആൾക്കാർ അരുവിക്കുഴി വെള്ളച്ചാട്ടം കാണാനായിട്ടു വരുന്നുണ്ട് വളരെ അവിടെ ഒന്ന് ഇപ്പം ആദ്യമൊക്കെ ചുമ്മാ ഫ്രീ ആയിട്ടു പോയി കൊണ്ടിരുന്ന സ്ഥലത്തിപ്പം വളരെ ടിക്കറ്റൊക്കെ ആയി ടിക്കറ്റൊക്കെ എടുത്തിട്ടു വേണം കയറാൻ അങ്ങനെ മഴക്കാലമാകുമ്പം ഭയങ്കര ഒത്തിരി വിനോദ സഞ്ചാരികൾ വരിക ഇങ്ങനെ വെള്ളച്ചാട്ടം ഭയങ്കര രസമാണ് അന്നേരം അതുപോലെ പല സ്ഥലങ്ങളും നാലു മണിക്കാറ്റ് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങലുണ്ട് ഇവിടെ കോട്ടയം ജില്ലയിൽ തന്നെ അടുത്ത് ഒത്തിരി സ്ഥലങ്ങളങ്ങനെ ഈ വീഡിയോ ഒക്കെ മാധ്യമം വഴി പ്ര ഇതു കണ്ട് വീഡിയോ ഒക്കെ കണ്ട് ആൾക്കാർ വരുന്നതാണ് അങ്ങനെ അത് ആ സ്ഥലത്ത് ആ സ്ഥലം തന്നെ അങ്ങ് ഇതാകുവാ പുരോഗമിക്കുകയാണ് കണ്ടാൽ അറിയപ്പെടാത്ത സ്ഥലങ്ങളൊക്കെ അങ്ങ് കുടെ അങ്ങ് എല്ലാം വളരെ വേഗത്തിൽ ആൾക്കാർക്ക് എത്തിക്കാനായിട്ട് സമൂഹ മാധ്യമ വേദികൾ സഹായിക്കുന്നുണ്ട് അങ്ങനെ ആ വളരെ ഒരു പുരോഗമനം വന്ന പല ഇതുകൊണ്ട് വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്ന സ്ഥലങ്ങൾ പലയിടത്തുമുണ്ട് അത് ഇപ്പം ഈ മാധ്യമങ്ങൾ വഴി ആണ് എല്ലാം സാ സാധിക്കുന്നതു കൂടുതലും